ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തന്നെ ഒരു വില്ലേജിലായ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നാട്ടിൻ പുറത്ത് റോട്ടിൽ കൂടെ ഓടാനാണ് എനിക്കേറ്റവും കൂടുതലിഷ്ടം എൻ്റെ വീടിൻ്റടുത്തന്നെ സ്കൂളുണ്ട് പക്ഷെ എങ്കിലും ഞാൻ ഗ്രൗണ്ട് ചൂസെയ്യാറില്ല മജോറിറ്റിയും റോട്ടിൽ കൂടെയാണ് ഓടാറ് കാരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചറ് എന്ജോയ് ചെയ്ത് ഓടാൻ പറ്റും ഈ രാവിലെ ടൈമെന്ന് പറയുമ്പോൾ നമുക്ക് ആ വെഹിക്കിൾസിൻ്റെയും മറ്റും ശല്യമൊന്നുമുണ്ടാവില്ല റോട്ടിൽ നമ്മള് മാത്രേ ഉണ്ടാവുകയുള്ളു സൊ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രാവിലെ ഉള്ള മഞ്ഞ് അതുപോലെ തന്നെ ആ ക്ലൈമറ്റ് എല്ലാം നമുക്ക് എന്ജോയ് ചെയ്ത് ഓടാം പിന്നെ റണ്ണിങ്ങിൻ്റെ ടൈമില് ഒറ്റക്കോടുന്നതാണ് ഞാനെപ്പഴും പ്രിഫറെയ്യുക കാരണം ഓടി ഓടി ജോഗിംഗ് അല്ല ബേസിക്കലി എൻ്റെ എൻഡുറൻസ് റണ്ണാണ് ഞാൻ ചെയ്യാറ് ജോഗിംഗ് ബിഗിനേഴ്സിനാണ് സോ ഞാൻ കൂടെ ആര് വിളിച്ചാലും എനിക്ക് എന്താന്ന് വെച്ചാൽ ഒറ്റക്കാണ് ഞാൻ ഓടാറുള്ളു പാട്ടും വെക്കും ഹെഡ്സെറ്റ് ഞാൻ യൂസെയ്യാറില്ല കാരണം സോ സപ്പോസ് നമ്മള് ബാക്കില് വല്ല വണ്ടിയും വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റൂലാ ഈ പാട്ടിൻ്റെ സൗണ്ടില് ബാക്കില് വണ്ടി വരണുണ്ട് ഹോൺ അടിക്കുന്ന സൗണ്ടൊന്നും നമുക്കറിയാൻ പറ്റൂല സോ ഞാൻ ഹെഡ്സെറ്റ് യൂസെയ്യാറില്ല ഫോണില് പാട്ട് ഫുൾ വോള്യത്തിലിടും അങ്ങനെ വെച്ച് കേക്കും നമുക്ക് മോട്ടിവേഷണൽ സോങ്ങ്സാണ് അധികം വെക്കാറ് സോ നമുക്ക് റണ്ണെയ്യുമ്പോൾ ആ ടയേർഡ്നെസ്സ് നമുക്കറിയാൻ പറ്റൂല അതാണ് പാട്ട് വെക്കണത് കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജെന്ന് പറയുന്നത് സൊ എനിക്ക് കായിക ഒരു മൂന്ന് കിലോമീറ്ററ് റൗണ്ടടിച്ച് വന്ന കറക്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് എൻ്റെ വീട്ടിൽ നിന്നാണ് വെച്ചാൽ നമുക്ക് ഫിനിഷിംഗ് പോയിൻറ്റ് കറക്റ്റ് വീട്ടിലേക്ക് എത്തണ രീതിയിലുള്ള റോഡിണ്ട് സൊ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എപ്പഴും ഓടാറ് പിന്നെ ഫ്രണ്ട്സിനെ കൂട്ടി ഓടാറുണ്ട് എങ്കിലും ആ ജോഗിങ്ങല്ല ജോഗിങ്ങാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം കാരണം നമുക്കെല്ലാർക്കും ഒരേ സ്പീഡില് ഒറ്റ ഒറ്റ പോക്കങ്ങനെ പോയാൽ മതി ജോഗെയ്ത് മെല്ലെ മെല്ലെ പോയാൽ മതി സൊ അസ് എ സ്പോർട്സ്മാൻ ആയതോണ്ട് നമുക്ക് കോമ്പറ്റിഷനുണ്ട് സൊ കോമ്പറ്റിഷന് ഇമ്പ്രൂവെയ്യാൻ വേണ്ടി നമ്മള് ഇമ്പ്രൂവെയ്ത് ഇമ്പ്രൂവെയ്ത് ഓടാണ് ഓരോ ദിവസം കൂടുന്തോറും നമ്മള് സ്പീഡ് ഇമ്പ്രൂവെയ്യാനാണ് നോക്കുന്നത് സോ നമ്മള് കൂട്ടത്തിലോടാന്ന് വെച്ചാലും ഞാൻ പൊതുവെ സ്പീഡിൽ ഓടിപ്പോകും അപ്പം നമ്മുടെ കൂടെ വരുന്നവർക്കാർക്കും നമ്മളൊപ്പം എത്തിക്കൂടാൻ പറ്റിക്കൂടണെന്നില്ല സൊ അപ്പം ഞാനാണ് അവരോട് സജെഷൻ കൊടുത്ത് എനിക്ക് നിങ്ങളുടെ ടൈം നോക്കിയിട്ട് നമുക്ക് ഒപ്പം പോയിട്ടും കാര്യല്ല നമ്മളൊപ്പം ഓടി എത്തണില്ല സൊ അതാണ് ഞാൻ ഒറ്റക്ക് റണ്ണെയ്യാൻ ചൂസെയ്യാനുള്ള കാരണം